സാധാരണ ഹോട്ടലുകളേക്കാളും എപ്പോഴും ഹോം സ്റ്റേകൾ തന്നെയായിരിക്കും നന്നായിരിക്കുന്നത് കാരണമെന്ന് പറയുന്നത് ഹോമ് അതായത് നമ്മുടെ വീട് വീടെന്ന് പറയുന്നത് നമുക്കേറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഹോട്ടലെന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്കാ വീടിൻ്റെ ആ ഒരു ആമ്പിയൻസ് കിട്ടില്ല ഹോം സ്റ്റേകളാകുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ രീതികൾ ഭക്ഷണം ഇവയെല്ലാം നമുക്ക് നമ്മുടെ വീടുമായിട്ട് വളരെ അധികം അടുപ്പം സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഹോട്ടലുകളെക്കാലും ഹോം സ്റ്റേകൾ തന്നെ ആയിരിക്കും നന്നായിരിക്കുന്നത് അതിൽ ഉൾപ്പെടുന്ന പ്രശ്നങ്ങളും ധാരാളം തന്നെ ആയിരിക്കും കാരണം ഹോട്ടലുകളിലേക്കാളും കൂടുതൽ ഫീസ് കൂടുതൽ നമ്മുടെ ഹോം സ്റ്റേകളിലായിരിക്കും പക്ഷേ സാധാരണ ഹോട്ടലുകളിൽ നമുക്ക് ഫാമിലിയായിട്ട് കുട്ടികളുമായിട്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഹോം സ്റ്റേകളേക്കാലും കൂടുതലായിരിക്കും കാരണം സെക്യൂരിറ്റിയുടെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരിക്കും പിന്നെ അവിടെ ധാരാളം ആൾക്കാരുകൾ വന്നും പോയും നിൽക്കുന്നതാണ് അതും നമ്മുടെ ഒരു പ്രൈവസിയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാൽ ഹോം സ്റ്റേകളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ആ ഒരു വീട് വീടിൻ്റെ ഒരു ആമ്പിയൻസ് നിലനിർത്തിക്കൊണ്ടുതന്നെ ഭക്ഷണമാണേലും നമ്മൾക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് ലഭിക്കും അപ്പം എങ്ങനെയും സാധാരണ ഹോട്ടലുകളെക്കാളും ഹോം സ്റ്റേകളാണ് നന്നായിരിക്കുന്നത് പക്ഷേ മുൻപ് പറഞ്ഞ പോലെ അതിലുൾപ്പെടുന്ന പ്രധാന പ്രശ്നം എക്കണോമിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും സാമ്പത്തികം കൂടുതൽ സാധാരണ ഹോട്ടലുകൾ ഹോട്ടലുകളേക്കാളും കൂടുതൽ ഹോം സ്റ്റേകളിലായിരിക്കും അതുപോലെ തന്നെ ഹോം സ്റ്റേകളുടെ ലഭ്യത നമ്മൾ സാധാരണ നോക്കുമ്പം ഹോട്ടലുകളിലേക്കാളും എണ്ണം കുറവ് ഹോം സ്റ്റേകൾക്കായിരിക്കും കാരണം ആരും ഹോം സ്റ്റേകളിലേക്ക് ഹോം സ്റ്റേകൾ നടത്താനായിട്ട് മുന്നോട്ട് വരുന്നവരുടെ എണ്ണം കുറവാണ് കാരണം അതിൻ്റെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ലൈസൻസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഹോം സ്റ്റേകൾ സാധാരണ ഹോട്ടലുകളെക്കാളും കുറവാണ് അപ്പം എൻ്റെയൊരഭിപ്രായത്തിൽ നമ്മുടെ ഹോം സ്റ്റേകൾ തന്നെയാണ് ഹോട്ടലുകളിലേക്കാളും വളരെ നല്ലത് ഏതൊരു യാത്രയിലും നമുക്ക് നമ്മുടെ വീടിൻ്റെ ആ ഒരു സന്ദർഭവും ആ ഒരു ആമ്പിയൻസുമെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ഹോം സ്റ്റേകൾ തന്നെയായിരിക്കും വളരെ മെച്ചം അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണേലും കൂടുതലും മായം ചേർക്കാത്ത പ്രകൃതി പ്രകൃതിയുമായിട്ട് ഇണങ്ങി നാടൻ ഭക്ഷണ രീതികളായിരിക്കും കൂടുതലും ഹോം സ്റ്റേകൾ നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകാരണം ഹോം സ്റ്റേകൾ തന്നെയായിരിക്കും നന്നായിരിക്കുന്നത്